എൻ്റെ വീട്ടിൽ ധാരാളം ഔഷധച്ചെടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തുളസി തുളസി കൂടാതെ കറ്റാർവാഴ കയ്യോന്നി പനിക്കൂർക്ക മഞ്ഞൾ തുടങ്ങിയവയൊക്കെയുണ്ട് തുളസിയുടെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യാവാണ് കാര്യം എൻ്റെ വീട്ടിൽ ധാരാളം ആയിട്ടുള്ളൊരു ഔഷധച്ചെടിയായത് കൊണ്ട് തന്നെ ഞാൻ തുളസിയെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ തുളസി എന്ന് പറയുന്നതൊരു നല്ല വാസനയുള്ളൊരു സസ്യമാണ് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തെണ്ട ഒരു ആളല്ല തുളസി എല്ലാവരും ഇഷ്ടപെടുന്നൊരു വാസനയുള്ള സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത് തുളസി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് കൃഷ്ണതുളസിയും രണ്ട് രാമതുളസിയും ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഔഷധഗുണം കൂടുതലയിട്ടുള്ളത് സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് അർത്ഥവത്ത് അഥവാ തുലനം ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയാണ് അർത്ഥം ചു ചുമ തൊണ്ടവേദന ഉദരരോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കാനും പിന്നെ ഈ കൃമി രോഗം ഉണ്ടല്ലോ കൃമിയെ ശമിപ്പിക്കാനും തുളസിയില വളരെ നല്ലതാണ് തുളസിയില ഇടിച്ച് പിഴിഞ്ഞ് നീര് ചെവിവേദന കുറക്കാനും ത്വക്ക് രോഗങ്ങളെയും പിന്നെ ജ്വരത്തെയും ഒക്കെ ശമിപ്പിക്കാനും പിന്നെ രുചി വർധിപ്പിക്കാനുവൊക്കെ തുളസിയില ഈ പിഴിഞ്ഞ നീരുണ്ടല്ലോ അതുപയോഗിക്കാറുണ്ട് പിന്നെ പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ പാറയാറുണ്ട് ജലദോഷത്തിനും മൂക്കടപ്പ് പനിയൊക്കെ വരുമ്പോൾ തുളസി വളരെ അത്യുത്തമമാണ് തുളസിയില ഇട്ട് ആവിപിടിച്ച് മൂക്കിൽ മൂക്കിലായിരുന്നാലും മണ്ടക്കകത്തായിരുന്നാലുവൊക്കെ ആവി പിടിക്കുന്നത് വളരെ അധികം നല്ലതാണ് പിന്നെ അതുകൂടാതെ വസൂരിക്കും പിന്നെ വസൂരി പോലെ വസൂരി പിന്നെ അതുപോലെ ചിലന്തി വിഷം തേളിൻ്റെ വിഷം പാമ്പിൻ്റെ വിഷം ഇതിനക്കെ തുളസിയില അരച്ച് ആ വിഷമേറ്റ ഭാഗത്ത് തേക്കാറുണ്ട് തുളസിയിലയും മഞ്ഞളും കൂടെ ചേർത്താണ് അങ്ങനെ ചെയ്യേണ്ടത് വിഷബാധയേറ്റ സ്ഥലത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് തുളസിയിലയും മഞ്ഞളും കൂടി ചേർത്ത് പച്ച മഞ്ഞളാണ് പിന്നെ വായിനാറ്റത്തിന് തുളസിയില വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വായനാറ്റം മാറുന്നതിന് പിന്നെ എന്താണ് ത്വക്ക് രോഗങ്ങൾ ശമിക്കുന്നതിനും മുഖകുരുവൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യ വർധന ഒരു വസ്തുവായിട്ട് തന്നെ കണക്കാക്കാം തുളസി എന്ന് പറയുന്നത് മുഖക്കുരുവിനെ ശമിപ്പിക്കാൻ വേണ്ടീട്ട് എത്ര വലിയ മുഖക്കുരുവായാലും എത്ര കാലപ്പഴക്കമുള്ള മുഖകുരുവായാലും അതിനെ പാടെ പറിച്ച് കളയുന്നതിന് തുളസിയില ഉപയോഗിക്കാം അത് പോലെ തന്നെയാണ് തുളസിയില പോലെ തന്നെ കാറ്റാർ വാഴയായാലും കയ്യോന്നി ആയിരുന്നാലും ഒക്കെ ഔഷധമൂല്യമുള്ള ചെടികൾ തന്നെയാണ് കറ്റാർ വാഴ മുടി വളർച്ചക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു കയ്യോന്നി ആയിരുന്നാലും അത് പോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനു മുടിയുടെ വളർച്ചക്കും മുടി പൊഴിയുന്നത് തടയാനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പിന്നെ മഞ്ഞൾ നമ്മൾ മഞ്ഞൾ ഏതൊരു മംഗള കാര്യത്തിനായിരുന്നാലും ഏതൊരു ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിനായിരുന്നാലും ഒക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് മഞ്ഞൾ എന്ന് പറയുന്നത് പച്ച മഞ്ഞൾ മഞ്ഞൾ സൗന്ദര്യവർദ്ധകവസ്തുവായിട്ടൊക്കെ ഉപയോഗിക്കാം ധാരാളമായിട്ട് പണ്ട് കാലം മുതലേ ഉള്ള നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ നമ്മുടെ എപ്പോഴും പറയുന്ന കാര്യമാണ് മഞ്ഞൾ തേച്ച് കുളിക്കുക എന്നുള്ളതൊക്കെ അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ചെടികൾ കൊണ്ട് നമുക്ക് ചെയ്യാം പിന്നെ ഈ ആൻറ്റി ബൈയോട്ടിക്കിനെക്കാട്ടിലും ഒക്കെ നല്ലത് ഈ ഇപ്പം പുതിയ ആൻറ്റി ബൈയോട്ടിക്കുകളൊക്കെ ഉണ്ടല്ലോ അതിനെക്കാട്ടിലും ഒക്കെ നല്ലത് പ്രകൃതി ദത്തമായ ഔഷധങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത് ആൻറ്റി ബൈയോട്ടിക്ക്കൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിന് അവ അതിൻ്റെ അവയവങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന കേടുപാടുകള് വരുത്തുന്ന ഒരു കാര്യമാണ് ഈ ആൻറ്റി ബൈയോട്ടിക്കുകൾ എന്ന് പറയുമ്പം